ആൺകുട്ടികളും പെൺകുട്ടികളും കളിക്കുന്ന ഗെയിമ് ഏതൊക്കെയാണെന്ന് കളികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആണുങ്ങൾ ക്രിക്കറ്റ് കളിക്കും പെണ്ണുങ്ങളും ക്രിക്കറ്റ് കളിക്കും അതിൽ പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഫുട്ബോളാണെങ്കിൽ ഞാൻ ഗേൾസ് പെൺകുട്ടികൾ കളിക്കുന്നത് കണ്ടിട്ടില്ല ആണുങ്ങൾ കളിക്കുന്നതേ കണ്ടിട്ടുള്ളൂ പിന്നെ അതിലും ഇപ്പം പെണ്ണുങ്ങളും ഫുട്ബോള് കളിച്ചാൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പം ഇപ്പോൾ നാട്ടുംപുറം ആയതുകൊണ്ട് നാട്ടുംപുറത്തെ കളികൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് അക്ക് കളിക്കാറുണ്ട് പിന്നെ ഒന്നിച്ചവർ രണ്ടും ഒന്നിച്ച് ക്രിക്കറ്റ് കളിക്കും ഫുട്ബോൾ കളിക്കും അങ്ങനെയുള്ള കളികൾ പിന്നെ എന്നാണ് പിന്നെ സാറ്റ് കളിക്കും അങ്ങനെയുള്ള കളികളെ ഉള്ളൂ മറ്റെതിനൊക്കെ തന്നെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങൾ ഒന്നും കാണുന്നില്ല ഇപ്പം വീട്ടിൽ സാധാ കുട്ടികൾ തമ്മിൽ കളിക്കുകയാണെങ്കിൽ വേഷത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസമൊന്നും കാണത്തില്ല അവർക്ക് പല വേഷങ്ങൾ പാൻറ് ഷർട്ട് ഇടുന്നവരുണ്ട് അല്ലാണ്ട് പെൺകുട്ടികളാണ് പാവാടയും ഷർട്ടും അല്ലേ പാവാടയും ബനിയൻ അങ്ങനെ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ വ്യത്യാസമൊന്നും കാണുന്നില്ല പിന്നെ എന്താണ് പുറത്തോട്ടൊക്കെ കളിക്കുന്ന സമയത്താണെങ്കിൽ ഓരോ ടീം ആയിട്ടുള്ള ഗെയിം ഒക്കെയാണെങ്കിൽ ആ ടീമ്സിന് വസ്ത്രങ്ങൾ ജെയ്സി കാണും ഒരേ നിറത്തിൽ അതിന് വ്യത്യസ്ത നമ്പര് കാണും അങ്ങനെയൊക്കെയുള്ളൂ ഞാൻ നോക്കിയിട്ട് വ്യത്യാസങ്ങളൊക്കെ കാണുന്നുള്ളൂ